ഇന്ത്യ ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണ സംവിധാനം എങ്ങനെയുള്ളതാണ് അത് നേരിടുന്ന ചില പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇന്ത്യയിൽത്തെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നല്ല രീതി എന്ന് പറയാൻ പറ്റില്ല എന്നാലും വളരെ നല്ല രീതിയിൽ അവര് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെകത്ത് പല വെല്ലുവിളികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നും ഉണ്ടത് കൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തില് അവർക്ക് പല കാര്യങ്ങളും അപ്പം എല്ലാ സ്ഥലവായിട്ട് ബന്ധപ്പെടായിട്ടോ അല്ലെങ്കിൽ എല്ലാ മേഖലയും ആയിട്ടോ ആരോഗ്യത്തിന് അത്ര വലിയ പ്രാധാന്യം ഇന്ത്യ കൊടുക്കുന്നില്ല എന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം കോവിഡ് അങ്ങനത്തെ കുറെ മഹാമാരികളൊക്കെ ഉണ്ടായപ്പോൾ കുറെ ആളുകള് മരിച്ചു ഒന്നാലും ഇന്ത്യ അത് പറ്റുന്ന രീതിക്ക് അവരെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാ കാര്യങ്ങളും അവര് നല്ല രീതിക്ക് ചെയ്തു എന്ന് തന്നെയാണ് അഭിപ്രായം അതുപോലെ തന്നെ ഇന്ത്യയിലെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ആരോഗ്യമുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല കുറെ പേർക്ക് ആരോഗ്യമില്ലാത്ത കുറെ ആളുകളുണ്ട് കുറെ രോഗത്തിലൂടെ കടന്ന് വന്നവരുണ്ട് ലോകം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കുറെ ആളുകളുണ്ട് അവർക്കെല്ലാം അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യത്തെ ആരോഗ്യ സംരക്ഷണം അത് അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ള അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം